ഇന്ത്യയിലിപ്പോൾ ഞാൻ പറയുകാണെങ്കില് സാങ്കേതിക വിദ്യയായാലും പിന്നെ വിദ്യാഭ്യാസം വിനോദം വ്യാപാരം ഗതാഗതം ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ എന്താ പറയുക നിരവധി എന്താ പറയുക വ്യവസായികളും നേതാക്കളുമൊക്കെ പങ്ക് ഇതാക്കിയിട്ടാണ് ഇപ്പൊൾ നല്ല രീതിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പൊൾ ഉദാഹരണം പറയുവാണെങ്കിൽ തന്നെ നരേന്ദ്രമോദി പിന്നെ എന്താ പറയുക പിണറായി വിജയൻ അങ്ങനെയുള്ള നേതാക്കളൊക്കെ ഇന്ന് സമൂഹത്തില് വലിയ വലിയ വിവേ എന്താ പറയുക വിദ്യാഭ്യാസത്തിനൊക്കെ തന്നെ വലിയ മുൻഗണന കൊടുത്തിട്ടാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടുതന്നെ എന്താ പറയുക കുട്ടികൾക്കൊക്കെ പഠനകാര്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാനൊക്കെ സാധിക്കുന്നുണ്ട് പിന്നെ ഗതാഗതം എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ കേരളത്തിൽതന്നെ പറയുകാണെങ്കിൽ ഭൂരിഭാഗം റോഡുകളും എന്താ പറയുക ഇപ്പോൾ നല്ല എന്താ പറയുക നല്ല വൃത്തിക്ക് തന്നെ വർക്ക് ഒക്കെ ചെയ്ത് നല്ല സൂപ്പർ റോഡ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഗതാഗത സൗകര്യങ്ങളും മറ്റൊരു എന്താ പറയുക വലിയ വലിയ മാറ്റങ്ങള് കൊണ്ട് വരാൻ ഗതാഗതത്തിലൊക്കെ തന്നെ വലിയ വലിയ മാറ്റങ്ങള് കൊണ്ട് വരാൻ ഇന്നത്തെ ഗവൺമെന്റീനയാലും ചില വ്യക്തികൾക്കൊക്കെ നടക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊൾ എന്താ പറയുക ഇതിലൊക്കെ നല്ലൊരു നേട്ടം കൈവരിക്കാൻ ഇത്തരത്തിൽ നേതാക്കൾക്കായാലും വ്യത് എന്താ പറയുക വ്യവസായികൾക്കായാലും സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്